ഹലോ ആ അതെ അല്ലോ അതെ അല്ലോ സാർ എവിടെ നിന്നാണ് വിളിക്കുന്നത് സ്കൂളിൽ ആ ആണോ സ്കൂളിൽ നിന്ന് അപ്പം ഞാന് വീട്ടിലാണ് ഞാൻ വീട്ടിലാണ് സന്ധ്യ ആകാറായില്ലേ സാറെ ഇനി ഇപ്പം വീട് എന്താണ് സ്കൂളിൽ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ സന്ധ്യ ആകാറായില്ലേ ഇനി ഇപ്പം വീട്ടിൽ പൊക്കോ സ്കൂളിൽ പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ

ആ ഹാ ഹാ ആ സന്തോഷമായിട്ട് പോവുന്നു സന്തോഷമായിട്ട് പോവുന്നു ക്ലാസ് ഈ ഈ വര്ഷത്തിനുള്ളിൽ കിട്ടിയ ക്ലാസൊക്കെ നല്ല ക്ലാസായിരുന്നു നല്ല പിള്ളേരും ആയിരുന്നു ചെറിയ പിള്ളേരല്ലേ ആം സാറിന്റെയോ ആവോ അല്ല ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് പിന്നെ നമ്മൾ ഇല്ലാത്തവരെ അങ്ങോട്ട് കൈയിൽ എടുക്കല്ലേ അവരെ ചേത്തു പിടിച്ചു കഴിയുമ്പം അവർ കുറച്ചൊക്കെ മാറിക്കോളും സാറിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഈപ്രാവശ്യം ആ ആ അല്ല അത് തന്നതെന്ന് പറയാൻ പറ്റത്തില്ല അര്ഹതപ്പെട്ടതത് മേടിച്ചെടുത്തതാണെന്ന് തന്നെ പറയാം നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് ആ അത് ശരിയാണ് അത് ശരിയോ പിള്ളേരെ വീണ്ടും ഇച്ചിരിയും കൂടെ നല്ല നിലയിലേക്ക് ആക്കാൻ നമ്മളൂം കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ അല്ലെ ആ അതെ അതെ അതെ പിന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ പോക്കൊക്ക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സങ്കടം വരികയും ചെയ്യും ആ ആ അതെ അതെ അതെ ആ അതെ അതെ അതെ അതെ അനുസരണയും ഇല്ല ആ ബഹുമാനവും ഇല്ല ആരേയും അപ്പം എനിക്ക് ആ കുഴപ്പം ഇല്ലാതെ പോവുന്നു കുഴപ്പം ഇല്ലാതെ പോവുന്നു പിള്ളേരെ എല്ലാം ആ പിന്ന അല്ലേ അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്ന പോലെ തന്നെയല്ലേ അവരേയും കാണുന്നത് നമ്മൾ എത്ര പ്രായമായാലും ഇവരെയൊക്കെ കാണുമ്പം ഇവർ നമ്മുടെ അടുത്ത് വരുമ്പം നമ്മക്ക് ഒരു ഭയങ്കര സന്തോഷം ഒക്കെ അല്ലേ ആണ് ആ അതെ അതെ അതെ അതെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ അവരോടുള്ള ഇടപെടൽ അവരെ ഒത്തിരി മാറ്റാൻ പറ്റും നമുക്ക് നമ്മൾക്ക് ആ ആ നല്ലതായിട്ട് പോവുന്നു നല്ലതായിട്ട് പോവുന്നു സാറിന്റെയോ അവിടെ സ്കൂളിൽ എത്ര കുട്ടികളൊക്ക കാണും ഏകദേശം എത്ര കുട്ടികളൊക്കെ കാണും ഒരു ക്ലാസിൽ ആണോ ആ ആ ആ എനിക്ക് ഏകദേശം അത്രെയൊക്കെ ഉണ്ട് കുഴപ്പം ഇല്ല ആ ആ ആ ഹാ ആ പാഠ്യേതര വിഷയങ്ങളിലും എല്ലാ സ്കൂളിലും നല്ല നല്ല രീതിയിൽ ആണല്ലോ പോവുന്നത് അവിടെ മത്സരങ്ങളും കാര്യങ്ങളുമൊക്കെ ആ അതെ അതെ അതെ ആവോ ആ അത് നല്ലതാണ് പിള്ളേർ പുസ്തകത്തിലെ മാത്രം പഠിപ്പിച്ചിട്ട് കാര്യം ഇല്ലല്ലോ ആ ഹാ അത് തന്നെ ആ ആ അതെ ആ അതെ അതെ ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ എന്നാൽ താങ്ക് യു സാറെ